കാസർഗോഡ് ജില്ലയിലെ പ്രധാന പ്രകൃതി വിഭവങ്ങൾ എന്നു പറയുന്നത് ജില്ലയിലെ ജലസ്രോതസ്സുകൾ തന്നെയാണ് പിന്നെ ഇടതൂർന്ന കാടുകളുള്ള പ്രദേശങ്ങള് ഉണ്ട് പിന്നെ നഗരപ്രദേശങ്ങളുണ്ട് അതുപോലെ ഗ്രാമപ്രദേശങ്ങളുണ്ട് അവിടെ ഇത് രണ്ടു തരത്തിലുള്ള ഇത് ആൾക്കാര് കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് കൂടുതലും ഈ പുഴയും പിന്നെ അതുപോലെ ഈ ഇടതൂർന്ന കാടുകളുള്ള ഒരു പ്രദേശത്ത് എപ്പോഴും നല്ല തണുപ്പും അങ്ങനെയുള്ള ഒരു കാലാവസ്ഥയാണ് പക്ഷേ അതിന് നേരെ വിപരീതമാണ് സാധാരണ പട്ടണപ്രദേശങ്ങളില് നഗരപ്രദേശങ്ങളിലുള്ള ഒരു കാലാവസ്ഥയെന്ന് പറയുന്നത് ഇപ്പോഴൊക്കെ നല്ലവണ്ണം ചൂടാണവിടെ അപ്പോള് നമ്മുടെ ഇത് ഏത് പ്രദേശമായാലും അവിടെ പ്രതി പ്രകൃതിവിഭവങ്ങളെന്നു പറയുന്ന നമ്മുടെ വലിയ വലിയ മരങ്ങള് വച്ചുപിടിപ്പിക്കുക അങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നേറ്റവും പ്രധാന വെല്ലുവിളി എന്നു പറയുന്നത് മലിനീകരണം തന്നെയാണ് അത് വായു മലിനീകരണമുണ്ട് അതുപോലെ ജലമലിനീകരണമുണ്ട് അതുപോലേ ഒരുപാട് പ്ലാസ്റ്റിക് അങ്ങനെയുള്ള വസ്തുക്കള് പിന്നെ ജലാശയങ്ങളിലും ബാക്കിയുള്ളവരുടെ പറമ്പുകളിലും അങ്ങനെ ഒഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഇത് കൂന കൂട്ടിക്കിടക്കുന്ന അവസ്ഥയുമുണ്ട് അപ്പോള് ഇതൊക്കെ ഇത് ചെയ്യാന് ആതക്ക് ഇതൊക്കെ നീക്കം ചെയ്യാനായിട്ട് പിന്നെന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ദീർഘവീക്ഷണം അതത് ഭാഗത്തുള്ള തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ചിലതൊക്കെ ഉണ്ടായിട്ടുണ്ട് ചിലതൊക്കെ പിന്നേ സത്യസന്ധമായ രീതിയില് ചെയ്യുന്നില്ല എന്നതാണ് വാസ്തവത്തിലുള്ള കാര്യം അതായത് ഇപ്പോള് നമ്മള് ഒരൂ നാടില് ഒരു പ്രദേശത്ത് മാലിന്യങ്ങളുണ്ടാവാനുള്ള സാഹചര്യം എന്താണ് അതിനേക്കുറിച്ച് പഠിക്കുക അതിനേക്കുറിച്ച് ദീർഘമായ പഠനം നടത്തിയിട്ട് നിരന്തരമായ ബോധവൽക്കരണം നടത്തുക അതുപോലെ ആ ഒരു പരിസ്ഥിതിയില് അനുഭവപ്പെടുന്ന മാലിന്യങ്ങള് നീക്കംചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടത് എന്തൊക്കെ മുൻകരുതലുകള് നമ്മളെടുക്കണം അത് ഇത് അവിടെനിന്നു നീക്കംചെയ്യാനായിട്ട് ഉള്ള നടപടികളെന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചുള്ള സമഗ്രമായ പഠനവും ബോധവൽക്കരണവും വളരെ അത്യാവശ്യമാണ് അപ്പോള് ഇപ്പോള് ഞങ്ങള് കാസർഗോഡ് നഗരസഭയിലാണ് നഗരസഭയില് പിന്നേ ഒരുപാട് കണ്ടിജൻ്റെ് വർക്കർമാരുണ്ട് അപ്പോള് കണ്ടീജൻ്റെ് വർക്കർമാരെന്നു പറയുന്നത് അവരുടെ കാര്യങ്ങള് സത്യസന്ധമായിട്ട് ചെയ്യുന്നുണ്ട് പഷേ കാസർഗോഡ് നഗരസഭയില് കൃത്യമായ ഷെഡ്യൂളില്ല അതായത് ഓരോ വാർഡുകളിലേക്കും നമ്മള് എങ്ങനെത്തിപ്പെടണം എങ്ങനെ നമ്മളൊരു പട്ടിക ഉണ്ടാക്കിയിട്ട് അവർക്കത് വീതിച്ച് കൊടുക്കണമെന്നുള്ള ഒരു ഷെഡ്യൂളില്ല അതിങ്ങനേ വരുന്നു അവരത് കൊണ്ടുപോകുന്നു പിന്നേ ആരാണ് വിളിക്കുന്നത് അവരുടെ കൂടെ അവര് ഇന്നു പറയാണെങ്കില് നാളെ അവരുടെ വാർഡിലേക്ക് വിട്ടിട്ട് അങ്ങനെയുള്ള വർക്കുകളാണ് ചെയ്യുന്നത് നിരന്തരം നമ്മള് കൃത്യമായ ഷെഡ്യൂള് പ്രകാരം പോവുകയാണെങ്കില് നഗരസഭയുടെ പിന്നെ പട്ട ടൗൺ പ്രദേശങ്ങളിലും അതുപോലെ ഉള്ളിലുള്ള വാര്ഡുകളിലൊക്കെ മാലിന്യപ്രശ്നങ്ങള് വളരെയധികം പരിഹരിക്കാനായിട്ട് സാധിക്കും ഒന്നാമതായിട്ട് അവര് ചെയ്യേണ്ട കാര്യമെന്നു പറയുന്നത് നമ്മുടെ ഉൾഭാഗത്തുള്ള വാര്ഡുകളില് മാലിന്യം നിക്ഷേപിക്കപ്പെടുന്നുണ്ടോ അത് നീക്കം ചെയ്യാനും നിക്ഷേപിക്കപ്പെടുന്നതു തടയാനും എന്തൊക്കെ മാർഗ്ഗങ്ങൾ സ്വീകരിക്കണം അതിന് നമ്മളോരോ വീടുകള് കയറിയിട്ട് പിന്നെ തുടർച്ചയായിട്ടുള്ള ബോധവൽക്കരണം അവർക്ക് പ്രത്യേക ക്ലാസ്സുകളും കൊടുത്തിട്ട് അവരെ ക്ലസ്റ്ററായി തരംതിരിച്ചിട്ട് ഓരോ ക്ലസ്റ്ററിനും ഇത്രയിത്ര കാര്യങ്ങള് വീതിച്ചു കൊടുക്കുകയാണെങ്കില് നമ്മള് ആ ഒരൂ പ്രക്രിയ നല്ലരീതിയില് കൊണ്ടുപോകാന് സഹായിക്കും അതുപോലെ നമ്മുടെ വീ വാ വാര്ഡുകളില് വീടുകള് കേന്ദ്രീകരിച്ചിട്ടായിരിക്കണം നമ്മുടെ മാലിന്യം നീക്കംചെയ്യാനുള്ള പ്രവർത്തനങ്ങള് തുടങ്ങേണ്ടത് അത് തുടങ്ങിയിട്ട് നിർത്താൻ പാടില്ല നമ്മള് സമഗ്രമായ രീതീലത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് പിന്നേ നമുക്കവരെ പറഞ്ഞ് മനസ്സിലാക്കാനും നമ്മള് ഇത് നമ്മുടെ ഒരു തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാലിന്യം ഇത് കളയുന്നതു വഴി പിന്നേ അതിന് ഒരുപാട് ഇത് വില നമ്മള് നൽകേണ്ടിവരുമെന്നുള്ള ബോധം ജനങ്ങളില് സൃഷ്ടിക്കുകയാണെങ്കില് നല്ല രീതിയില് ആ പ്രദേശത്തുള്ള എല്ലാ കാര്യങ്ങളും അതായത് മാലിന്യം നിക്ഷേപിക്കുക അത് നീക്കം ചെയ്യുക എന്നിങ്ങനെയല്ലാതെ മാലിന്യം നിക്ഷേപിക്കാതിരിക്കാനുള്ള മാർഗ്ഗങ്ങളും ചെയ്യാനുള്ള ഒരു ത്വര എല്ലാവരിലുമുണ്ടാവും അപ്പോള് അതുകൊണ്ടാണ് പറയുന്നത് മാലിന്യമുണ്ടാക്കുക എന്നതല്ല ഇണ്ടാക്കാൻ ഉള്ള രീതീ അതായത് നമ്മളൊരു കടയില് പോകുമ്പോള് നമ്മള് ഒരു കവര് കയ്യില് പിടിച്ചിട്ട് കൊണ്ടുപോക്വാ തുണിസഞ്ചിയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഇപ്പോള് അങ്ങനയുള്ളൊരു പ്രവണതയൊന്നുമില്ല നമ്മള് ഘോര ഘോര പ്രസംഗിക്കേയുള്ളു അതൊന്നും നടപ്പിലാക്കുന്നില്ല അപ്പോള് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങള് ചെയ്യാനായിട്ട് ഒരുപാട് നല്ല നല്ല മാർഗ്ഗങ്ങള് സ്വീകരിക്കാൻ സാധിക്കും ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ഒരു കാഴ്ച്ചപ്പാടുണ്ടാവുകയാണെങ്കിൽ മാലിന്യം ഉണ്ടാക്കുന്നതു തടയാനും എല്ലാ കാര്യങ്ങളും നല്ല രീതിയില് ചെയ്യാനുള്ള ഒരൂ പ്രവർത്തനം ഇണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്